നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഥകളി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിനുപരി ഇന്ത്യയിൽ എപ്പോഴും ഒരു സംരക്ഷിക്കപ്പെടേണ്ട ഒരു കലാരൂപമാണ് കഥകളിയെന്ന് പറയുന്നത് അതായത് അതൊരു ഒരു വളരെ വലിയൊരു മികച്ച ഒരു കലയാണത് ആ കലയെ നമ്മൾ ഒരിക്കലും ആ കലയെ പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ അതിനെ ഒരിക്കലും തളർത്തി താഴെ ഇടാനോ അല്ലെങ്കിൽ അതിനെ വലിച്ച് ത താഴ്പോട്ടിട്ടിട്ട് നമ്മളുടെ പുതിയ മോഡേൺ കാര്യങ്ങളെ ഒന്നും വലിച്ച് മേളിലോട്ട് കയറ്റാനൊന്നും നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ കുഴി കുത്തൽ നമ്മളുടെ സ്വന്തമായിട്ടുള്ള കുഴി കുത്തലിന് നമ്മൾ കുഴി കുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊക്കെ ആ ഒരു കലാരൂപങ്ങളൊക്കെയെന്ന് പറയുന്നത് അത് അതൊരു കലാകാരൻ്റെ ഒരു കലയും അതിൻ്റെയൊരു എല്ലാം അതിൻ്റെ കലയും അതിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൊറച്ച് സ്കില്ലും പിന്നെ കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഒത്തിണങ്ങി വരുന്ന ഒരു കലാരൂപമാണ് കഥകളിയെന്ന് പറയുന്നത് ആ കഥകളി ഒരു ഒരു ക ഒരു ക ഒരു കഥകളിക്കാരൻ ആ ഒരു കഥകളി നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിയ അദ്ദേഹത്തിൻ്റെ പിന്നിലെ വിഷമങ്ങളെല്ലാം മറച്ചുവെച്ച് അദ്ദേഹം നമ്മളെ ചിരിപ്പിക്കുകയും നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു കലാരൂപമെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു ഒരിക്കലും ഒരു നമ്മൾ കളയാൻ പറ്റാത്ത ഒരു കലാരൂപങ്ങളാണ് അതിനെ ഒന്നും ഒരിക്കലും അപ്രത്യക്ഷം ആക്കരുതെന്നാണ് എൻറ്റൊരഭിപ്രായം